ഹലോ ഞാൻ ഒരു റ്റു ത്രീ ഫൈവ് വണ് പിന് നമ്പറുള്ള ഒരു കസ്റ്റമറായിരുന്നു ഞാൻ കുറച്ച് നേരം മുന്നെ ആനിക്കാട്ടു നിന്ന് തിരുവല്ലയിലേക്കൊരു ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരു ക്യാബും ഞാന് ഓട്ടോറിക്ഷ ഞാന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പം പെട്ടന്നൊരു ഒരു വ്യത്യാസം വന്നു ഞാൻ കുറച്ചൂകൂടെ എനിക്കൊരു പെട്ടന്നൊരാവിശ്യം ആയിട്ട് ഞാനിപ്പം മല്ലപ്പള്ളിയിലേക്ക് വന്നു അപ്പം എനിക്ക് മല്ലപ്പള്ളിയിൽ നിന്ന് എന്നെ കൊണ്ടു എന്നെ കൊണ്ടുപോയി എനിക്ക് തിരുവല്ലയെന്നായിരുന്നു ഞാന് പറഞ്ഞത് പക്ഷെ എനിക്കിപ്പം തിരുവല്ല പറ്റില്ല എനിക്ക് കുറച്ചുകൂടെ ഒരു കോട്ടയം സൈഡിലേക്കാണ് പോവേണ്ടത് അപ്പം കോട്ടയം കോട്ടയത്തേക്ക് എന്നെ എനിക്കൊന്ന് കൊണ്ടുവിടാന് എന്നെ കൊണ്ടുവിടാന് പറ്റുമോ എനിക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണ് എനിക്കറിയാം ഇത് ലൊക്കേഷന് മാറുമ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പക്ഷെ അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണ് എന്നെ കൊണ്ടുവിടാന് പറ്റുമോ ഒരു ഒരു ഒരു ഒരു പത്തു കിലോമീറ്ററുകൂടെ എക്സ്ട്രാ ആകും നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും മാര്ഗ്ഗങ്ങൾ അറേയ്ഞ്ച് ചെയ്യാമായിരുന്നു